ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി നാല് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുപ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്